സ്മാര്ട്ട് ഫോണുകൾ ഇറങ്ങിയതിന് ശേഷം പല വിധത്തിലുള്ള ആപ്പുകള് നിലവില് വന്നിട്ടുണ്ട് ഇതില് പ്രധാനപ്പെട്ടവയും കൂടുതൽ ഉപയോഗിക്കുന്നതുമായ ആപ്പുകളാണ് വാട്സ് അപ്പ് യു റ്റൂബ് ഫേസ് ബുക്ക് ഇന്സ്ടഗ്രാം തുടങ്ങിയവ സ്മാര്ട്ട് ഫോണുകള് വഴിയാണ് ഇത്രയും ആപ്പുകൾ നമ്മള് നിരന്തരം ഉപയോഗിക്കുന്നത് അത് പരിശോധിച്ചാല് ഈ ഇത് ഇവയുടെ നിരന്തര ഉപയോഗം പല ഗുണങ്ങളും അതുപോലെ തന്നെ പല ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇനി ഗുണങ്ങള് നമ്മള് പരിശോധിച്ചാല് പ്രധാനപ്പെട്ടവയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിന്റെ ഏത് കോണിലും ഉള്ള വാര്ത്തകള് തത്സമയം അറിയാം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ പുതിയ ബന്ധങ്ങള് സൃഷ്ടിക്കാന് ഉപകരിക്കുന്നു വളരെ ദൂരെയുള്ള കുടുംബാങ്കങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാനും കാര്യങ്ങള് പരസ്പരം അറിയാനും സഹായിക്കുന്നു പിന്നെ ദോഷങ്ങള് പരിശോധിയ്ക്കുകയാണെങ്കിൽ കുട്ടികള് ഈ സ്മാര്ട്ട് ഫോണ് നിരന്തരം ഉപയോഗിക്കുന്നത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കണ്ണിന് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് അതുപോലെ കുട്ടികള് ഈ ഫോണിന് അടിമപ്പെടുന്ന തായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇത് ഇവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട് കുട്ടികള്ക്ക് ഭഷ്ണം കഴിക്കാന് പോലും ഫോണ് വേണം എന്നുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഫോ അതുപോലെ ഫോണില് കൂടി മാത്രം ബന്ധങ്ങള് ചുരുങ്ങുന്നതുകൊണ്ട് മനുഷ്യന് നേരിട്ടുള്ള ബന്ധം വളരെ കുറഞ്ഞ് കാണാന് കാരണമാകുന്നുണ്ട്